നമ്മുടെ ജീവിത നിലവാരത്തെ ഗതാഗതം കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പണ്ടു കാലങ്ങളിൽ ഇല്ലാതിരുന്ന എത്രയോ പുതിയ യാത്രാ രീതികളാണ് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് വ്യക്തിപരമായി എൻ്റേതും മൊത്തം ജനങ്ങൾക്കും പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ചിട്ട് യാത്ര ചെയ്യാൻ അതിനൂതനവും അതിവേഗതയേറിയതുമായ പല പല രീതികൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും പുതിയ പുതിയ വേഗതയിൽ നിന്നും അതിവേഗതയിലേക്ക് ലോകം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് പഴയ കാലത്ത് സ്കൂളുകളിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒക്കെ നടന്നുപോയി കൊണ്ടിരുന്നതാണ് വീട്ടിൽ നിന്നും ഏകദേശം ഇരുപത് മിനിട്ട് ഇരുപത്തഞ്ച് മിനിറ്റ് സമയം നടന്നു കൊണ്ട് ഒരു പ്രദേശത്തേക്ക് എത്തി അവിടെ നിന്ന് സാവധാനത്തിൽ സാധനങ്ങൾ വാങ്ങി സ്കൂളിലാണെങ്കിൽ പഠനം പൂർത്തിയാക്കി സാവധാനം തിരിച്ച് ഇരുപതോ മുപ്പതോ മിനിറ്റ് എടുത്തു കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സംവിധാനം കാൽ നടയായിട്ട് നടത്തമാണ് ഒരു രീതി നമ്മൾ അവലംബിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ലോകം മാറി കുറെ കാലം കഴിയുന്ന സമയത്ത് എൻ്റെ യാത്രാ സൈക്കിൾ ഉപയോഗിച്ചിട്ടായി സൈക്കിളിലാകുമ്പോൾ ഇരുപത് മിനിറ്റ് നടത്തമെന്നുള്ളത് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് സമയത്തിൽ എത്താൻ പറ്റുന്ന ഒരു സംവിധാനമായി പിന്നീട് അത് ബൈക്കിലേക്ക് മാറി ഒരു മിനിറ്റ് ഇരുപത് മിനിറ്റ് നടത്തം വേണ്ട സ്ഥലത്ത് ഏകദേശം ഇരുപതിലൊരു ഭാഗം മാത്രം വെറും ഒരു മിനിറ്റ് കൊണ്ട് ലക്ഷ്യ സ്ഥാനത്ത് എത്തി തിരിച്ച് ഒരു പ്രയാസമില്ലാതെ തന്നെ ഉടനെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തി ആകെ രണ്ട് മിനിറ്റ് സമയം കൊണ്ട് പോയി അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി തിരിച്ചെത്താൻ പറ്റുന്ന ഒരു കാലഘട്ടം ഒരു കുഞ്ഞിനെ ഉറക്കി എഴുന്നേൽക്കുമ്പഴേക്ക് തിരിച്ചെത്താൻ പറ്റുന്ന അവസ്ഥ അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ഇത് പ്രാദേശികമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതേ പോലെ വലിയ വലിയ യാത്രകൾ നടത്തുന്ന സമയത്ത് ഫ്ലൈറ്റ് യാത്ര വേഗതയേറിയ ഫ്ലൈറ്റുകൾ ഇപ്പോൾ ട്രെയിൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാധാരണ ട്രയിനിൽ കാസർഗോഡ് നിന്ന് ഷോർണൂരിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഏകദേശം ആറ് ഏഴ് മണിക്കൂറ് സമയം വേണം ചുരുങ്ങിയത് ഇക്കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വന്ദേഭാരത് ട്രയിനിൽ വരുന്ന സമയത്ത് ഏകദേശം മൂന്ന് മണിക്കൂർ നേരെ പകുതി സമയം കൊണ്ട് കാസർഗോഡേക്ക് എത്തി കാരണം സ്റ്റോപ്പുകളുടെ എണ്ണം കുറവാണ് അതു മാത്രല്ല നല്ല വേഗതയുണ്ട് ഫുള്ള് ഗ്ലാസ്സ് കൊണ്ട് കവറായിട്ടുള്ള ഡോറും വിൻറ്റോസും ആയതു കൊണ്ട് കാറ്റിൻ്റെ ഒന്നും പ്രശ്നമില്ല ക്ലൈമറ്റ് ഏത് ക്ലൈമറ്റ് ആണെങ്കിലും പ്രശ്നമില്ല അകത്ത് നല്ല സംവിധാനമുണ്ട് ഫുഡ് ഉണ്ട് അതേ പോലെ തന്നെ ഹോട്ട് വാട്ടർ വേണമെങ്കിലുണ്ട് ടോയ്ലെറ്റ് ഒക്കെ നല്ല ക്ലീനുണ്ട് അങ്ങനെ ലൈറ്റിങ്സും എല്ലാ സ്ക്രീനിൽ എല്ലാ സ്റ്റേഷനും എല്ലാം കാണുന്നുണ്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല പേപ്പർ ഉണ്ട് കുടി വെള്ളമുണ്ട് സകല സംവിധാനം വെജ് ഫുഡ് നോൺ വെജ് ഫുഡ് എല്ലാം സേഫ് ആയി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമുണ്ടായിട്ടുണ്ട് പഴയ കാലത്ത് കാളവണ്ടി യുഗം എന്ന് പറയും പഴയ കാലത്ത് കാലഘട്ടത്തിനെ കാളവണ്ടിയിൽ പുല്ലും അതേ പോലെ പല സാധനങ്ങളും കലാണെങ്കിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കയറ്റിക്കൊണ്ട് പോകും രാവിലെ കാളവണ്ടി നടന്നു നീങ്ങിയാൽ പത്തോ പതിനാലോ കിലോമീറ്ററ് പിന്നിടുമ്പോഴേക്കത് ഉച്ചയോ വൈകുന്നേരമോ ആകും ആ കാളകളെ അടിച്ചും തളർന്നും അവശനിലയിൽ കാണുന്ന ആ കൊച്ചു കാലഘട്ടം എനിക്കിപ്പോൾ ഓർമ വരുന്നു ഈ മൃഗങ്ങളോട് എത്ര ക്രൂരതയാണ് കാണിച്ചത് മനുഷ്യൻ പക്ഷെ ഇന്ന് അതൊന്നുമല്ല പെട്രോൾ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ പല പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഡീസല് പെട്രോള് ഇപ്പോൾ ഗ്യാസ് എൽ പി ജിയിലേക്കെത്തി പിന്നെ ജലം കൊണ്ട് പ്രവർത്തിക്കുന്ന ഉൾപ്പെടെ ഒരുപാട് യന്ത്രങ്ങളുടെ പ്രവർത്തനം നടന്നു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പഴയകാലത്തു നിന്നും വ്യത്യസ്തമായിട്ട് പുതിയ യാത്രാ രീതികൾ നമുക്ക് വളരെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് നമ്മുടെ ജീവിത നിലവാരത്തെ തന്നെ ഉയർത്തുന്നുണ്ട് കാരണം നമുക്ക് ജീവിതത്തിൽ ഒരു ദിവസം എന്നു പറയുന്നത് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് തിരിച്ചെത്തുമ്പോഴേക്ക് ആ ദിവസം നഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു പഴയ കാലം പക്ഷേ പഴയകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രീതി ഒരു ദിവസം എടുക്കുന്ന സ്ഥലത്ത് ഇന്ന് ഏകദേശം അര മണിക്കൂർ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പോയി വരാം ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം അത് പണ്ടു മുതലേ അങ്ങനെ ആണല്ലോ അതിൽ കുറേ ഉറങ്ങിപ്പോയി ബാക്കിയുള്ള പകൽ സമയം ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് മണിക്കൂർ സമയം ആ സമയം മുഴുവനും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി യാത്ര ചെയ്ത് സമയം കളയുന്നതിന് പകരം ഇപ്പോൾ അതു കേവലം ഒരു മണിക്കൂർ കൊണ്ട് വാഹനങ്ങളിൽ പോയി വരുന്നത് കൊണ്ട് തന്നെ ബാക്കിയുള്ള സമയം നമുക്ക് മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും കുട്ടികളാണെങ്കിൽ പഠനത്തിൽ പഠിത്തം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം കിട്ടുന്നുണ്ട് കുട്ടികൾക്ക് അദ്ധ്യാപകൻ മറ്റ് ജോലികൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർക്കും വൈകാതെ എത്താൻ പറ്റും അതു പോലെ സ്ത്രീകളൊക്കെയാണെങ്കിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഓഫീസുകളിലേക്ക് എത്താൻ സാധിക്കും വൈകുന്നേരം ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇതെല്ലം പൊതുവായിട്ടുള്ള പ്രയോജനം ആണ് പക്ഷേ പഴയ കാലഘട്ടങ്ങളിലെക്കാളും സുരക്ഷിതമാണ് ഇന്നത്തെ യാത്രകൾ പഴയ കാലഘട്ടത്തിൽ ജനസംഖ്യ കുറവായതുകൊണ്ട് ഒറ്റപ്പെട്ട വഴികളിലൂടെയുള്ള നടത്തം മൃഗങ്ങളുടെ ശല്യം വഴിയറിയാതെ മൊബൈൽ ഫോൺ ഒന്നും ഇല്ലാതെ കാലഘട്ടം ഏതെങ്കിലും ഒരാൾ തലകറങ്ങി വീണാൽ ആരും കാണാനില്ല അടുത്ത് ആശുപത്രികളുണ്ടാവില്ല പെട്ടെന്ന് കൊണ്ട് പോവാൻ വാഹനങ്ങളുണ്ടാവില്ല പരിചിതരായ ആൾക്കാർ ഉണ്ടാവണമെന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് മിനിറ്റ് വച്ചിട്ട് മൊബൈൽ ഫോണിൽ വിളിക്കും അപ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ളവരെ വണ്ടി വിളിക്കാം അന്നേരം അന്നേരം എല്ലാ സ്ഥലത്തേക്കും എത്തും അതു കൊണ്ട് ഒരു അപകടമോ അസുഖമോ വന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആതുരാലയങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അപ്പം ഇങ്ങനെ വളരെയധികം ഇന്നത്തെ ലോകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്തുന്ന തലത്തിലേക്ക് യാത്രാ സൗകര്യങ്ങൾ ഉയർന്നിട്ടുണ്ട് പണ്ടുകാലങ്ങളില്ലാതിരുന്ന പുതിയ യാത്രാ രീതികളാണ് ഇന്ന് മുഴുവൻ നിലവിലുള്ളത് പണ്ടത്തെ വാഹനങ്ങൾ എന്ന് പറയുന്നത് ഒരൂ കാളവണ്ടിയോ കുതിരവണ്ടിയോ സൈക്കിളോ ഇരുചക്ര വാഹനം മോട്ടോർ ബൈക്ക് വളരെ അപൂർവം പേർക്കും കാറ് വളരെ അധികം ധനികന്മാർക്കും മാത്രമുള്ള വാഹനമായിരുന്നു ഇന്ന് സാധാരണ എല്ലാവരുടെ വീട്ടിലും കാറ് എത്തിക്കഴിഞ്ഞു ട്രെയിൻ യാത്ര ഒരു നിസ്സാര സംഭവമായിട്ടുണ്ട് ഇന്ന് സാധാരണക്കാരൻ പോലും ഫ്ലൈറ്റില് യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഞാൻ തന്നെ ഇപ്പോൾ ഈ ഒരു ഒരു അഞ്ച് വർഷത്തിനിടയിൽ ഒരു ഒൻപത് വിമാനത്തിൽ യാത്ര ചെയ്തു ഇതുവരെ എനിക്ക് അത് പറ്റിയിരുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മളെ ലൈഫ് ജീവിതം മാറിയിരിക്കുന്നു സാമ്പത്തിക മായ് ആണെങ്കിലും ബാക്കി എല്ലാ രീതിയിലാണെങ്കിലും ഇന്ന് ആൾക്കാർ സൗകര്യങ്ങളാണ് സമയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പം സമയമെടുത്തു കൊണ്ട് സമയം കൂടുതൽ ചിലവഴിക്കാതെ കുറച്ച് സമയം എടുത്തുകൊണ്ട് കൂടുതൽ ദൂരത്തേക്ക് എത്താനുള്ള മാർഗം മനുഷ്യൻ നോക്കുന്നുണ്ട് അത് ഒരു ഭാഗത്ത് ആരോഗ്യത്തിനെ ബാധിക്കുന്നുമുണ്ട് നടത്തം എല്ലാം എങ്കിൽപ്പോലും നമ്മുടെ പല നെഗറ്റീവിനേക്കാളും കൂടുതൽ പോസിറ്റീവ് ആണ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം അതു കൊണ്ട് ഇനി ഉള്ള ലോകം എന്ന് പറയുന്നത് സ്പീഡ് വേൾഡ് ആണ് സ്പീഡ് ലോകം ആണ് എല്ലാ കാര്യത്തിനും സ്പീഡ് എന്നുള്ളത് സൂപ്പർ സ്പീഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒച്ചിൻ്റെ വേഗതയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ആയുസ് ഒക്കെ കൂടുതലാണെങ്കിലും ഇന്ന് ആയുസ്സ് കുറവാണെങ്കിലും കുറഞ്ഞ ആയുസ്സിൽ തന്നെ ഒരുപാട് കാലങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വളരെ സമയനിഷ്ഠ ആവശ്യമാണ് അതു മാത്രല്ല ഇന്ന് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ നമ്മുടെ വാഹനങ്ങൾ തന്നെ വേണമെന്നില്ല നമുക്ക് ടാക്സി ആയി എപ്പോൾ എവിടെ നിന്ന് വേണെമെങ്കിലും കോൾ വിളിച്ചാൽ ടാക്സി നമ്മുടേലുണ്ടെങ്കിൽ ഉപയോഗിക്കാം നമുക്കെന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടു പോകാനോ കൊണ്ടു വരാനോ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായി വാഹനങ്ങൾ വേണമെന്നില്ല ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് ടാക്സി പിടിച്ച് നമുക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇഛിച്ച സാധനങ്ങൾ സാധിക്കുന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഫോൺ കോൾ ലൂടെ പറഞ്ഞാലും സാധനങ്ങൾ വീട്ടിലേക്കെത്തും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പഴയകാലത്തിനെ അപേക്ഷിച്ചിട്ട് ഭക്ഷണം ആണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും എല്ലാം എത്തിക്കുന്നതും അതു പോലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിമൊക്കെ ഗതാഗത സൗകര്യം ഒരു വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം